നമ്മുടെ ലോകം ഓരോ നിമിഷവും അല്ലെങ്കിൽ ഓരോ സെക്കണ്ടിലും ഓരോ പുതിയ പുതിയ കാര്യങ്ങളിൽ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് വന്നുകൊണ്ട് ഇരിക്കുകയാണ് ഓരോ ഓരോ സെക്കൻ്റിലും ഇപ്പോൾ ഓരോ കണ്ടുപിടുത്തങ്ങൾ നടന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പത്തു കൊല്ലം മുൻപ് ജീവിച്ചിരുന്ന രീതി അല്ല ഇപ്പോൾ പത്തുകൊല്ലം മുൻപ് നമുക്ക് ഈ വിരൽ തുമ്പിൽ കിട്ടുന്ന സ മൊബൈൽ എന്നുപറയുന്ന സംഭവം ഇത്ര ആവൈലബിൾ ആയിരുന്നില്ല അതുപോലെ അന്ന് ഉപയോഗിച്ചിരുന്ന ഇൻ്റർനെറ്റ് രീതി അല്ല ഇന്ന് നമുക്ക് എന്ത് സംഭവവും ഇപ്പോൾ നമ്മളുടെ വിരൽ തുമ്പിൽ കിട്ടും കൊറോണ വന്നതിനു ശേഷം നമുക്ക് ഉണ്ടായ ഒരു സംഭവം ആണ് ഡെലിവറി ഡോർ ഡെലിവറി സംവിധാനം അന്ന് അതിനു മുന്പും ഉണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ ഡോർ ഡെലിവറി സംവിധാനത്തിൽ കുറച്ചുംകൂടി ഒരു കൂടുതൽ ആയിട്ടുള്ള ഒരു പ്രാതിനിധ്യം നമുക്ക് കിട്ടിയിട്ടുണ്ടായി എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് എല്ലാവരും വീട്ടിൽ ഇരിക്കുന്നത് കൊണ്ടും പുറത്തിറങ്ങാൻ പറ്റാത്തത് കൊണ്ടും അന്ന് പുറത്തിറങ്ങാൻ പറ്റ നടക്കുന്നത് ഈ ഡെലിവറി ആൾക്കാർക്ക് ആയിരുന്നു അപ്പോൾ അവർ കൃത്യമായിട്ടതിനെ ഉപയോഗിച്ചു ആ ഒരു സ് സംരംഭം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നല്ല പ്രചാരത്തിൽ ഉണ്ട് അതുപോലെ നമ്മൾ നോക്കുകയാണെന്നു പറയുമ്പോൾ ഓൺലൈൻ പഠിത്തം അതൊരു പുതിയ മാറ്റം ആണ് നമ്മൾ മുൻപൊക്കെ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോയി പഠിക്കുക ട്യൂഷനും പോയി പഠിക്കും ഇപ്പം എന്താണ് കുട്ടികൾക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ഇരുന്നിട്ടു തന്നെ എല്ലാ കാര്യങ്ങളും പഠിക്കാം നമ്മൾ അതിനായിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും യൂട്യൂബിലൊ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ചാനലിലോ ഏതെങ്കിലും സേർച്ച് ചെയ്ത് നോക്കാം അങ്ങനെ അല്ലെങ്കിൽ നെറ്റ് ഗൂഗിൾ സേർച്ച് ചെയ്യാം അങ്ങനെ നോക്കി അവർക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ നോക്കി അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓരോ വേറെ ഒരു എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് വീടിൻ്റെ ടെക്നോളജി പണ്ട് എന്ന് പറയുമ്പോൾ ഓട് അല്ലെങ്കള്ള് ടെറസ് ഇപ്പോൾ നമ്മൾ പുതിയ പുതിയ ഓരോ ടെക്നോളജി വരുന്നുണ്ട് ആർ സി വീട് വരുന്നുണ്ട് അതുപോലെ നമുക്ക് വീ ബോർഡിൽ വീട് പണിയാം ചിലവ് കുറഞ്ഞ രീതിയിൽ പണിയാൻ പറ്റും പിന്നെ കണ്ടെയ്നറിൽ അങ്ങനത്തെ വീടുകളും കാര്യങ്ങളും പണിയാൻ പറ്റും അങ്ങനെ നമ്മൾ ലോകം കൃത്യമായിട്ട് നല്ല രീതിക്ക് പരി പരിണമിച്ചു കൊണ്ട് ഇരിക്കുന്നു ഓരോ ദിവസവും ഓരോ വെറൈറ്റി ആയിട്ടുള്ള കണ്ടുപിടുത്തം അപ്പോൾ അതിന് അനുസരിച്ച് നമ്മുടെ ലോകം മുന്നോട്ട് പോയ്കൊണ്ടിരിക്കുന്നു പിന്നെ നമുക്ക് ഇതുകൊണ്ട് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ടത്തെപ്പോലെ അങ്ങോട്ട് മനുഷ്യന്മാരായിട്ട് ഒരു കണക്ഷൻ കിട്ടുന്നില്ല നമ്മൾ തമ്മിൽ തമ്മിലുള്ളൊരു കണക്ഷൻ അതിൽ വരുന്നില്ല സത്യം പറയുകയാണ് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഫ്രണ്ട്സ് ആയതുകൊണ്ട് കൂടുതൽ ആയിട്ട് നേരിട്ട് കാണാനോ അങ്ങനെ ഉള്ള സംഭവങ്ങൾക്ക് ഒന്നും ആരും മുതിരുന്നില്ല പിന്നെ പണ്ടത്തെ പോലെ കുട്ടികൾ കളിക്കാനോ ഒക്കെ അങ്ങനെ താത്പര്യം ഇല്ല അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളും ഇതിൻ്റെ ഭാഗം ആയിട്ട് വരുന്നുണ്ട്